എനിക്ക് എനിക്ക് ഫേസ്ബുക്ക് ട്വിറ്റർ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയയിലൊന്നും എനിക്ക് അക്കൗണ്ടില്ല പിന്നെ എനിക്ക് വാട്സപ്പിലും യൂട്യൂബുമൊക്കെയാണ് ഞാൻ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് എല്ലാം കൂടി എടുത്താൽ നമ്മുടെ സമയം ഈ സോഷ്യൽ മീഡിയക്കകത്ത് മുങ്ങി കുളിച്ചു പോകും നമ്മുടെ ഒരുകാര്യവും നടക്കുകേല എന്നുള്ളൊരു പരിഗണനയിലാണ് ഞാൻ ഇതൊക്കെ വേണ്ടായെന്നു വെച്ചിരിക്കുന്നത് പിന്നെ യൂട്യൂബ് കേൾക്കും കാരണം എന്താന്നു വെച്ചാൽ നമുക്ക് നമ്മുടെ ജോലി നടക്കുകയും ചെയ്യും ഇത് ഒരു സൈഡിൽ കൂടി കേൾക്കുകയും ചെയ്യാം അങ്ങനെ പിന്നെ വാട്സാപ്പുള്ളത് കൊണ്ട് പഴയകാല പഠനകാല സുഹൃത്തുക്കളുമൊക്കെയായിട്ട് കണക്ഷനുണ്ട് അങ്ങനെ അവരുമായിട്ടൊക്കെ ഇൻറ്ററാക്റ്റ് ചെയ്ത് കാര്യങ്ങളറിയാനും തമാശ പറയാനും സംസാരിക്കാനുമൊക്കെ ഉപകരിക്കുന്നു അതെപ്പോഴും ഉപയോഗിക്കാറില്ല ഇടക്കൊക്കെ നോക്കും അത്രയേയുള്ളൂ പിന്നെ യൂട്യൂബ് എൻ്റെ ഒരു സഹ സന്തത സഹചാരിയാണ് ഒരൻപത്തി നാലു വയസ്സുകാരിയായ എനിക്ക് ഭക്തി കാര്യങ്ങളോടൊക്കെ താത്പര്യമുള്ളതാണ് അപ്പം ഭക്തി ഗാനങ്ങളും ഭക്തി പ്രസംഗങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ സമയം ചിലവഴിക്കുന്നത് യൂട്യൂബിലിതിനൊക്കെ വേണ്ടിയാണ് അത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ ചില സമയത്ത് പൊതുവിജ്ഞാന കാര്യങ്ങളും നമുക്ക് അവ്യവ കിട്ടേണ്ട രാഷ്ട്രീയമായ കാര്യങ്ങളും രാജ്യ മറ്റ് രാജ്യങ്ങളെ പറ്റിയുള്ള അറിവുകളും അതും ഞാൻ കാണാറുണ്ട് അതും എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് പിന്നെ നമുക്ക് അറിവ് വർദ്ധിപ്പിക്കാൻ ഒരു ഉപാധിയായിട്ടും കൂടിയാണ് ഞാനതിനെ കാണുന്നത് പിന്നെ എൻറ്റർറ്റേൻമൻറ്റെന്നു പറഞ്ഞാൽ അങ്ങനെ എൻറ്റർറ്റെയ്ൻ ആയിട്ട് ഉപയോഗിക്കാറില്ല കൂടുതലും ഭക്തിയുടെ താത്പര്യമുള്ളതുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ ഒക്കെ കേൾക്കുവാണ് കൂടുതൽ ചെയ്യുന്ന കാണാനതിനു സമയം മെനക്കെടുത്താറില്ല പിന്നെ ഈയറിവ് പകരുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് കേൾക്കും നല്ല അറിവുള്ളവർ പറയുന്ന പ്രഭാഷണങ്ങൾ കേൾക്കും ലോകത്തെ പറ്റി ഭൂമിയെ പറ്റി ചരിത്രപരമായകാര്യങ്ങളെ പറ്റി പഴയ രാജാക്കന്മാരെ പറ്റി ഇൻഡ്യ ചരിത്രത്തെ പറ്റി അങ്ങനെയുള്ള ഒത്തിരിയൊത്തിരി കാര്യങ്ങൾ ഓരോ രാജ്യങ്ങളുടെ ഫോർമേഷൻ അവിടുത്തെ ഫോം ചെയ്യാനുണ്ടായ സാഹചര്യങ്ങൾ പഴയ കാലത്തെ നേതാക്കന്മാർ മറ്റു രാജ്യങ്ങളിലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കാറുണ്ട് അതെനിക്കൊരുപാട് ഉപകാരപ്രദമാണ് പിന്നെ താത്പര്യമുള്ള വിഷയങ്ങളാണ്